ഭയങ്കര മുട്ടുവേദന ആണെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടേങ്കിൽ പിന്നെ കുറെ ഇലകളൊക്കെ കിട്ടും ഇലകളൊക്കെ ചതച്ച് ഇടുവാണെങ്കിൽ നീര് വലിയും അതേപോലെതന്നെയാണ് മുരിങ്ങയില ഇല്ലെ ഭയങ്കര നീരൊക്കെ വെച്ചിരിക്കുയാണെങ്കില് മുരിങ്ങയില പിന്നെ ചതച്ച് അതിൻ്റെ നീര് ഇങ്ങനെ കെട്ടിവെക്കും മുരിങ്ങയില വെച്ചിട്ട് അപ്പോൾ നീര് വലിയും വേദനയൊക്കെ ഉണ്ടെങ്കില് വേദനയോ നീരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകും മുരിങ്ങയില കെട്ടിവെക്കുമ്പോൾ മുരിങ്ങയില ഭയങ്കര ഔഷധമുള്ള ഒരു ഇതാണ് അത് ഇപ്പോൾ നമ്മള് വീണാലും കൈ ഓടിഞ്ഞാലും ഏതൊക്കയാണെങ്കിലും നമ്മള് മുരിങ്ങയിലയിൻ്റെ ചാറ് എടുത്തിട്ട് ഇങ്ങനെ കെട്ടിവെക്കും അരച്ചിട്ട് അതിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് കെട്ടിവെക്കും അല്ലെങ്കില് ഞങ്ങള് എൻ്റെ അപ്പുപ്പന്മാരൊക്കെ ചെയ്യുന്ന പരിപാടിയായിരുന്നു മണല് ചൂടാക്കും മണല് ചൂടാക്കിയിട്ട് പിന്നെ ഇങ്ങനെ ചൂട് പിടിക്കും ചൂട് ഇങ്ങനെ പിടിക്കും അപ്പോൾ പോവും പിന്നെ കുഴമ്പ് തേച്ചിട്ട് പിന്നെ വെള്ളം ഇങ്ങനെ വെള്ളം വെച്ചും ചൂട് പിടിക്കും കുഴമ്പ് തെക്കും നല്ല കുഴമ്പ് വാങ്ങിച്ച് നന്നായി അങ്ങ് തേച്ച് പിടിപ്പിക്കും എന്നിട്ട് കുഴമ്പ് വെച്ചിട്ട് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോ ചൂട് വെളളം കൊണ്ട് നല്ല ചൂട് വെള്ളം കൊണ്ട് ഇങ്ങനെ നമ്മള് കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ തോർത്തോ എടുത്തിട്ട് കാലിൽ ഇങ്ങനെ ചൂട് പിടിപ്പിച്ച് കൊടുക്കും അതൊക്കെയാണ് ഇപ്പം നിലനിൽക്കുന്നത്